എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബൈക്ക് യാത്ര ചെയ്യാൻ തന്നെയാണ് ഒരുപാട് ദൂരമാണെങ്കിലും എനിക്ക് മറ്റ് വാഹനങ്ങളിൽ പോകുന്നതിലേറെ കൂടുതൽ ബൈക്കിലൂടെ പോകുന്നതാണ് ഇഷ്ടം എന്താണെന്ന് വച്ചാൽ നമുക്ക് വൊമിറ്റിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല അതുപോലെ നമുക്ക് ഒരുപാട് നേരം നോൺ സ്റ്റോപ്പില്ലാതെ നമ്മൾ യാത്ര ചെയ്തും കൊണ്ട് ഇരിക്കുവാണെങ്കിൽ നടുവേദന തോള് വേദന ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അതില്ലാതിരിക്കാൻ നമ്മൾ കുറച്ച് ദൂരം കഴിഞ്ഞാൽ എവിടെ എങ്കിലുമൊന്ന് നിർത്തി എന്തെങ്കിലുമൊക്കെ കാഴ്ചകളോ അതിനിപ്പം അതില്ലാതെ ഫുഡ് ഡ്രിങ്ക്സൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് പിന്നെ യാത്ര തുടാരാണ് നല്ലത് അങ്ങനേണ് ചെയ്യുന്നെന്നുണ്ടെങ്കിലും നമുക്ക് തോള് വേദന നടുവേദന ഒക്കെ അതിനൊക്കെ നമുക്കൊരു ഇല്ലായ്മ് നമുക്ക് ഇല്ലാതിരിക്കും നടുവേദനയും തോള് വേദനയും നമുക്ക് ഇല്ലാതിരിക്കും പിന്നേ ഫുഡ് കഴിക്കുന്നത് എല്ലാ ഫുഡും കഴിക്കുന്നത് ഇഷ്ടമാണ് യാത്ര ചെയ്യുമ്പോൾ നാടൻ ഭക്ഷണമായിട്ടും അതേ പോലെ ഫാസ്റ്റ് ഫുഡ് ഓരോ ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്നതൊക്കെ ഇഷ്ടമാണ്